ടിക്ടോക്ക് നോക്കി ഞാൻ നൃത്തം പഠിച്ചിട്ടില്ല പക്ഷെ എൻ്റെ പെമ്പിള്ളേര് രണ്ടു പേരും കളിക്കുന്ന എനിക്ക് അതിശയം വന്നിട്ടുണ്ട് അതുങ്ങളെങ്ങനെ അങ്ങനെ ഓർത്തിരുന്നു നിമിഷ നേരം കൊണ്ടു വളഞ്ഞും തിരിഞ്ഞും ഒക്കെ കളിക്കുന്ന എങ്ങനെയെന്നു ഞാൻ അതിശയിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്നു പഠിക്കുന്നതുതന്നെയേ എനിക്കു മനസ്സിലിരിക്കത്തുള്ളൂ അതില്ക്കൂടുതലൊന്നും എന്നെക്കൊണ്ടു പറ്റുകയില്ല നമ്മല് പ്രായത്തിൻ്റെതായതു കൊണ്ടായിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ തലമുറ ടിക്ടോക്കിനെ ആശ്രയിക്കുന്നവരാണ് അവരുടെ ബ്രെയിനും ഒക്കെ അതനുസരിച്ച് നല്ലപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കു തോന്നുന്നത് അവരുടെ കയ്യുടെയും കാലിൻ്റെ ഒക്കെ ചലനങ്ങളും എന്താണോ ഒരു അതൊക്കെ അവരെക്കൊണ്ട് പറ്റും നമ്മളെ എന്നെപ്പോലെയുള്ളവരെക്കൊണ്ട് ഡാൻസ് എന്തെങ്കിലും കളിക്കണമെങ്കില് എന്തെങ്കിലും ഏത് ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്നു പഠിച്ചാലല്ലാതെ ഒരു സെന്റൻസ് പോലും അല്ല ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടുവയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല അത് ഓരോ തലമുറയിലുള്ള വ്യത്യാസങ്ങളായിരിക്കും ഇപ്പോഴത്തെ പിള്ളാർക്കു പുതിയ തലമുറക്കാർക്ക് ഒരുപക്ഷെ ഗുരുവിൻ്റെ മുമ്പിൽ നിന്നു പഠിക്കുന്നതിലും അവർക്കിഷ്ടം ടിിക്ടോക്കില് അവര് സ്വയം ഇട്ടു പഠിക്കുന്നതായിരിക്കാം എന്തായാലും ഞാൻ എനിക്കു പറ്റുന്ന പണിയല്ല